ആ അതെ അതെ ഇത് ആരാ ആ വിഷ്ണുവിൻ്റെ അമ്മ ആ എട്ടാം ക്ലാസ്സിലെ വിഷ്ണുവിൻ്റെ അമ്മയാ

അവന് കുറച്ച് ഉഴപ്പാണ് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പോൾ എക്സ്ട്രാ സെഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അവന് നല്ല കാലിബർ ഉള്ള കുട്ടി ഒക്കെ തന്നെ ആന്ന് പക്ഷെ ചില സമയത്ത് ഒരു കളി കൂടുതലാ എക്സ്ട്രാ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ല അങ്ങനെ ഒക്കെയാ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ബോർഡ് നോക്കീട്ട് എഴുതി എടുക്കുക ആക്കുക ഒക്കെ ചെയ്യുന്നണ്ട് പക്ഷെ പിന്നീട് ഒരു പ്രോബ്ലെം കൊടുത്തിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ ഡൗട്ട് വരുക നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിൽ ആ പറ്റുന്ന രീതിയിൽ ക്ലിയറ് ചെയ്യാൻ വേണ്ടീട്ട് ശ്രമിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ എക്സ്ട്രാ സെഷൻസ് ഒക്കെ ഇങ്ങനെ ഇള്ള കുട്ടികൾക്ക് എക്സ്ട്രാ സെഷൻസ് എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒക്കെ ഇരിക്കാൻ പറയുന്നുണ്ട് ഹോം വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ

ആ ഹോം വർക്ക് കൊടുത്താൽ അത് ചെയ്യൂല്ല ആ വീട്ടിൽ വന്നിട്ട് ഹോം വർക്ക് ബുക്ക് എടുക്കാറില്ല എല്ലാ ദിവസവും ഹോം വർക്ക് കൊടുക്കാറുണ്ട് മാത്സിൽ ഒക്കെ ദിവസം ഓരോരോ എക്സർസൈസ് ഒക്കെ അതിൽ ഏതെങ്കും പോർഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് ചില അവരെ മുന്നോട്ട് കൊണ്ട് വരാൻ വേണ്ടീട്ട് ചില പ്രോബ്ലെംസ് ഒക്കെ കൊടുക്കാറുണ്ട് അവൻ ഒന്നും ചെയ്യത്തില്ല ആ ക്ലാസ്സിൽ വരുമ്പോൾ പറയും കിട്ടത്തില്ല കിട്ടീട്ട് ഇല്ല അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കലേ ഇല്ല അല്ലേ

ആ ആ അടുത്ത ക്ലാസ്സിൽ വന്നപ്പാട് ഞാൻ ശ്രദ്ധിക്കാം ഞാൻ ചോദിച്ച് നോക്കാം ആ ഇനി ഇപ്പോൾ വീട്ടിലനിന്ന് ഇങ്ങനെ അമ്മ പറഞ്ഞിട്ട് ഉണ്ട് അങ്ങനെ പറഞ്ഞ് നോക്കാം നമ്മൾ നമ്മളെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ആ

ആ ആ ശരി ആ ആ ഓക്കെ ആ നമ്മൾ ശ്രദ്ധിക്കാം ആ ആ